ഇന്ത്യയിലിപ്പോൾ എല്ലാ കലാരൂപങ്ങൾക്കും അതിൻറ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പം എല്ലാ കലാകാരന്മാർക്കും വേണ്ടുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ ആണെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടുന്ന രീതിയിൽ കലോത്സവം മുതലായ കലാപരിപാടികളും കലാമേളകളും എല്ലാം നടത്തുന്നുണ്ട് അതിലെല്ലാവരും മത്സരിക്കുന്നുണ്ട് നമ്മൾ കൂടുതലായും കലാകാരന്മാരെയോ വാർത്തെടുക്കുകയും അവരുടെ കഴിവുകളെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം പണ്ടത്തെ കലാരൂപങ്ങളായ ആട്ടകല ചവിട്ടു നാടകം കഥകളി തെയ്യം പിന്നെ നൃത്ത കലയാണെങ്കിൽ കുച്ചിപ്പുടി ഭരതനാട്യം മുതലായ കലാരൂപങ്ങൾ ഇപ്പോൾ റെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ എന്നിങ്ങനെ കലാരൂപങ്ങളും ഏറ്റവും കൂടുതലും റെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ആ കലാരൂപങ്ങളെ ഉയർത്തിയെടുക്കുകയും അതിന് കൂടുതലായും പ്രാധാന്യം നൽകുകയും ആണ് സഹായിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൂടുതലായും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം അങ്ങനെ നമുക്ക് പഴയ കലാരൂപങ്ങളെ പിന്നെയും നിലനിന്നു പോവും ഇല്ലാതാകാതെ നിലനിന്നു പോവുകയും ചെയ്യും പിന്നെ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു മനസിലാക്കി കൊടുക്കുകയും ചെയ്യാം അതെന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് പറഞ്ഞു മനസിലാക്കി കൊടുക്കുവാനും സാധിക്കും അപ്പം അങ്ങനെ പണ്ടുള്ള കാലങ്ങളിലായിരുന്നെങ്കിൽ ഈ കലാകാരന്മാർ ഉണ്ടെങ്കിൽ തന്നെയും അതിന് അത് പഠിക്കുവാനോ മുതലായ കാര്യങ്ങൾക്കോ യാതൊരു സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം സാമ്പത്തികമാണ് എല്ലാത്തിനും വലുതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മളൊരു കലയെ പഠി കല പഠിക്കാൻ ചെന്നാലും അവരാവശ്യപ്പെടുന്നത് സാമ്പത്തികമായിരിക്കും അപ്പം അന്നത്തെ കാലഘട്ടങ്ങളിൽ സാമ്പത്തികം ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ എന്നാലും അവർക്ക് കഴിവ് ഉള്ളത് കൊണ്ട് അവർ സ്വന്തമായിട്ട് കഠി കഠിനാധ്വാനം ചെയ്യുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് അങ്ങനെ അങ്ങനെ അവരാ കലയെ ഉയർത്തി കൊണ്ടുവരുന്നു കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ കലാരൂപങ്ങളായ ഓരോ കലകളും മാറിയിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലകളെയെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും അതിനു വേണ്ടി അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയും കൂടുതലായും കുട്ടികളെ നമ്മൾ അതിലേക്ക് നയിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ പഴയ കലകൾ നിലനിന്നു പോവുകയുള്ളു പിന്നെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതലും കൂടുതലായും കലകളെ ആർക്കും വേണ്ട അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത് കാരണം എല്ലാവർക്കും ഈ ഡി ജെ റാപ്പ് അങ്ങനെയുള്ള രീതികളിലേക്കും ഒക്കെയാണ് പോവുന്നത് ഏറ്റവും കൂടുതലും കുട്ടികളും ഇപ്പം മൊബൈൽ ഫോൺ യൂസേജ് കാരണം പഴയ കലാരൂപങ്ങളും അങ്ങനെയുള്ള രീതികളും കലയെ ഒന്നും ആരും വക വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കലകളെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു എപ്പോൾ അപ്പോൾ ഈ കലകളെ നമ്മൾ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി കൂടുതലായും കുട്ടികളിലേക്ക് നമ്മൾ കലകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ രീതികൾ എല്ലാം ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഈ കലകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ കാലകള് കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലും ഈ കലാമേളയും ശാസ്ത്രമേളയും മുതലായവ നടത്തുന്നതുകൊണ്ട് അവരുടെ കലയെ നമുക്ക് ഉയർത്തി ഉയർത്തി ഓരോ രീതിയിലേക്ക് മാറ്റുവാനൊക്കെ സാധിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരെ സ്റ്റേറ്റിലേക്കും ജില്ലാ തലത്തിലേക്കും അങ്ങനെയുള്ള ഓരോരോ തലങ്ങളിലേക്കും അവർ വളർന്നു വളർന്ന് ചെല്ലുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കലാകാരന്മാരെയും എല്ലാവരെയും നമ്മൾ കലാകാരന്മാരെ എല്ലാവരെയും നമ്മൾ നശിപ്പിക്കാതെ കലകളും നശിച്ചു പോകാതെ ഇരിക്കുകയുള്ളൂ പിന്നെ പിന്നെ കല എന്ന് പറയുന്നത് ഒരു ദൈവികമായ ഒരു കലയാണല്ലോ ദൈവികമായ ഒരു കാര്യമായതുകൊണ്ടാണല്ലോ നമ്മൾ കല എന്ന് പറയുന്നത് അപ്പോൾ ആ കലയെ നമ്മൾ നശിപ്പിക്കാതെ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും മുതലായ കാര്യങ്ങൾ ചെയ്യുകയുമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ കലയെ നമുക്ക് പഠിച്ചെടുക്കുവാനും സോ ഈ ടാലൻ്റ് ഉള്ളവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സബ്ജറ്റ് ആണ് കല എന്ന് പറയുന്നത് ഇപ്പോൾ കല എന്ന് പറയുന്നത് ഇപ്പം പല രീതിയിലുണ്ട് ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഈ വാദ്യോപകരണങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പല പല രീതിയിലാണാല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ രീതി ആയതുകൊണ്ടു തന്നെ നമുക്ക് പല രീതിയിലുള്ള കലാരൂപങ്ങളും കിട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അധികം ഉപയോഗിക്കുന്നത് ഈ ഭരതനാട്യം തിരുവാതിരകളി കഥകളി തെയ്യം കൂടിയാട്ടം മുതലായ കലകളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കള കലകളെയും ഈ ഗരുഡൻ ഗരുഡൻ തൂക്കം അങ്ങനെയുള്ള കലകളെല്ലാം ഇപ്പോൾ റെയർ കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കലകളെയെല്ലാം നമ്മൾ നശിച്ചു പോകാതെ കൂടുതലായും കൂടുതലായും വളർത്തി എടുക്കുകയും എല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും സഹായിക്കുകയും വേണം